ഓർമ്മയുണ്ടോ ഓഹ് സുഖം സുഖത്തിനു കുറവൊന്നുമില്ല ഫൈനൽ ഇയറാണിപ്പോൾ

അയ്യോ ഒന്നും പറയണ്ട അതിനേക്കാട്ടിലും മോശം നിങ്ങള് പഠിക്കുമ്പോൾ ഒക്കെ എന്ത് സുഖമല്ലേ ടീച്ചർമാർ മിണ്ടില്ല ആരും ഒന്നും പറയുകയൊന്നുമില്ല ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും അറ്റൻഡൻസ് ഷോർട്ടേജ് അത് ഇത് പറഞ്ഞിട്ട് ഭയങ്കര വെറുപ്പിക്കലാണ് അതുതന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഇട്ടുതരുമല്ലോ ഞങ്ങൾക്കൊന്നും ഇട്ടും തരില്ല അറ്റൻഡൻസ് ഓഹ് പിന്നേ ഞാൻ കണ്ടിരിക്കണ് നിങ്ങളെത്ര പ്രാവശ്യം കട്ടടിച്ചു പോയിരിക്കുന്നു മിണ്ടാതിരിക്ക് തള്ളാൻ അപ്പോഴേക്കും തുടങ്ങി നിങ്ങള് നിങ്ങളെ ഞാൻ വിളി ഏഹ് പ്രൊജക്ടിൻ്റെ കാര്യം ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു നിങ്ങളെവിടെയാണ് പ്രൊജക്ട് ചെയ്തത് ആ നിങ്ങളുടെ ആ മറ്റേ ഇതിൻ്റെ പ്രൊജക്ട് ഇല്ലേ യോനോൻ്റെ അത് നിങ്ങളെവിടെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് കോളേജിൽ വെച്ചുതന്നെ ചെയ്തത് പുറത്തൊന്നും പോകണ്ടേ

അതേ ഓക്കെ ഇനി

ഒക്കെയും നമ്മുടെ തലയിൽത്തന്നെ ആ എന്നെ ഞാനേ ക്ലാസ്സിൽ കയറുന്നില്ല എൻ്റെ കൂടെയുള്ളതൊന്നും ക്ലാസ്സിൽ കയറാത്തത് ഞാൻ അവരെ കൂട്ടത്തില് ഏറ്റവും അറ്റൻഡൻസ് ഉള്ളത് എനിക്കാണ്

ഗൈഡ് സുരേഷ് സർ ഒന്നും പറയണ്ട ഇനി കൂടെയുള്ള ഭ്രാന്തന്മാർക്കൊക്കെ മനസ്സിലാവണ്ടേ എനിക്ക് മാത്രം മനസ്സിലായാൽ മതിയോ ഒക്കെ പണി നമ്മുടെ തലയിലാണ് ആ ഗ്രൂപ്പാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ ഇനി ഒറ്റയ്ക്കും കൂടിയേ ചെയ്യണ്ടൂ എന്നാൽ പൊരിക്കും സാറന്മാർ ഇപ്പ്രാവശ്യം എന്തോ ഗ്രൂപ്പാക്കുകയാണ് ആ അതുതന്നെയാണ് പറഞ്ഞത് ഇപ്പ്രാവശ്യം എന്തോ ഗ്രൂപ്പാക്കാൻ തോന്നി സാറന്മാർക്ക് അതുകൊണ്ട് രക്ഷപെട്ടു ഞങ്ങള് മൂന്നാളുണ്ട് അതാ പറഞ്ഞത് നിങ്ങളൊറ്റയ്ക്ക് നിങ്ങൾക്കൊറ്റയ്ക്ക് ചെയ്തുതീർക്കാം ഇവിടെ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടേ ചെയ്തു തീർന്നില്ല ഒന്നും ആയിട്ടൊന്നും ഇല്ല ഒരു ടോപ്പിക്ക് ഞാൻ പതുക്കെ സെറ്റപ്പ് ചെയ്തു നിങ്ങളുടെ ആ സാധനം തന്നെ അടിച്ചുമാറ്റി ചെയ്യാമെന്നു പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു ചേച്ചിയെന്തോ വർക്ക് ജോലിയൊക്കെ കിട്ടി പോയിയെന്നു പറഞ്ഞു എവിടെയാണിപ്പോൾ ഏഹ് അപ്പോൾ ഏഹ് എന്താണ് പണി വെറുതെയിരിക്കുക തന്നയല്ലേ നല്ല ശമ്പളം എന്ത് സുഖം അല്ലേ ജോലിയും കിട്ടി പണി കഴിഞ്ഞു പഠിത്തവും കഴിഞ്ഞു ജോലിയും കിട്ടി ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെയൊക്കെയാ ലൈഫ് കേട്ടോ നമ്മളും ഉണ്ട് ഇവിടെ വാഴ മാതിരി ഇരിക്കന്നു ആ റെഡിയാവും റെഡിയാവും റെഡിയാണ് ആ അടിച്ചുപൊളിച്ചു ഇപ്പോൾ രണ്ടുകൊല്ലം അടിച്ചു പൊളിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഇക്കൊല്ലം അനുഭവിച്ചുകൊണ്ടിരിക്കണത് ആകെ നാല് സപ്പ്ളി എഴുതാനേ വയ്യ ഉള്ള സപ്പ്ളി രണ്ടെണ്ണം ഉണ്ട് എങ്ങനേയും എഴുതിയെടുക്കണം എഴുതിയിട്ടില്ല ഇതുവരേയും എഴുതിയില്ല ഇപ്പ്രാവശ്യം എഴുതണം ഇപ്പ്രാവശ്യം പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇയർ പോവുകയല്ലേ ലാസ്റ്റ് സെമ്മിൽ രണ്ടു സബ്ജക്ടെ ഉള്ളൂ അപ്പം അതിന്റൊപ്പം എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് അതാവുമ്പോൾ കുഴപ്പമില്ല മറ്റേത് എല്ലാത്തിലും ആറു സബ്ജക്ട് വച്ച് പഠിക്കേണ്ടിവരും ഇതിപ്പോൾ രണ്ടെണ്ണം പഠിച്ചാൽ മതിയല്ലോ ഇല്ലില്ല അതൊക്കെ പാസ്സാകും അതൊക്കെ പാസ്സാകും മറ്റേ ഇവിടെ ഈ പ്ലേസ്മെന്റിലൊക്കെ ആരെങ്കിലും വരുമോ

ഉണ്ട് തോന്നണുണ്ട് നോക്കണം നമ്മളങ്ങോട്ട് സാറന്മാരായിട്ട് വലിയ ഇതില്ലല്ലോ നിങ്ങളൊക്കെയല്ലേ സാറന്മാര്ക്ക് വലിയ ദൈവം നമ്മൾക്കെന്ത് സാറന്മാര് ഒക്കെ ഒരേപോലെതന്നെ ആ പ്ലേസ്മെന്റ് ഒക്കെയുണ്ട് ഇപ്പ്രാവശ്യം കുറച്ചു കൂടുതൽ കമ്പനികളൊക്കെ വരുന്നുണ്ടെന്നു പറഞ്ഞു ആ ഏതായാലും പോയിക്കാണണം ഇനി മാർക്ക് മാർക്കൊന്നും ഇല്ല പാസ്സായിട്ടുണ്ട് അതുപോരെ മാർക്കൊക്കെ കമ്മിയാണ് എത്രായിപ്പോൾ അറുപത്തൊമ്പതാണ് ഏഴാണ് ഏഴൊക്കെയേയുള്ളൂ സി ജി പി എ ഛെ നാലൊക്കെയേയുള്ളൂ സി ജി പി എ നാലോ നാലരയോ അത്രേ ഉള്ളൂ ശരിയേച്ചി ഞാനെന്തായാലും വീട്ടിലേക്ക് വരാം അതിൻ്റെ കുറച്ചൂം കൂടി കാര്യങ്ങളറിയാനുണ്ട്